എനിക്ക് സന്ദർശിക്കാൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതക്കായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് പിന്നെ കുറേ ദൂരങ്ങളിൽ അങ്ങനെ അതായത് നമ്മുടെ സ്ഥലങ്ങളലാണ്ട് ഇപ്പോൾ നമ്മ കോഴിക്കോട് മെയിനായിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടതാണ് അതുപോലെത്തന്നെ ഞാനിങ്ങനെ വേറെവിടെയും ഇതുവരെ പോയിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ വണ്ടർലാ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടർലാ വീഗാലാൻഡ് അങ്ങനെയുള്ള സ്ഥലതൊക്കെ പോകാൻ പിന്നിങ്ങനെ ബേക്കൽ കോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം അതായത് എറണാകുളം ലുലു മാൾ ലുലു മാളിൽ അതായത് ലുലു മാളിനെ പറ്റിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉളളൂ അപ്പോൾ ലുലു മാളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ലുലു മാളിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ എനിക്കങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പ്ര പ്രത്യേകിച്ച് അങ്ങനെയാണ് അങ്ങനെ ഒരു സാധനങ്ങൾ മേടിക്കാനും പിന്നെയെന്ന് വെച്ചാൽ ഉത്സവ സീസണിൽ ഉത്സവത്തിനൊക്കെ പോകാനും അവിടെ നിന്ന് പല പല സാധനങ്ങളൊക്കെ മേടിക്കാനും അങ്ങനത്തെ അങ്ങനത്തെ കാര്യത്തിനോടൊക്കെയാണ് എനിക്ക് കൂടുതലും താത്പര്യം സ്ഥലം കാണും വേണം അതുപോലെ അത് നമുക്ക് അതായത് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വേടിക്കാനും പിന്നെ ഭക്ഷണം ഒരുപാട് നമ്മൾ വെറൈറ്റി ഫുഡ്ഡുകൾ കഴിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം